ഹലോ കോഴിക്കോട് ലാൻഡ് ബ്രോക്കറാണോ പിന്നെ നമുക്ക് കുറച്ചു സ്ഥലം വേണാരുന്നു കോഴിക്കോട് നമുക്ക് മെയിൻ റോഡ് വേണ്ട നമുക്ക് കുറച്ചു ഉള്ളിലോട്ട് പക്ഷേ നമുക്ക് അതായത് വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യമുള്ള ഒരു സ്ഥലാരിക്കണന്നേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് മെയിൻ റോഡ് അങ്ങനൊന്നും വേണ്ട നമുക്ക് അധികം റേറ്റും വേണ്ട ഒരു ലോ കോസ്റ്റിൽ മതി

ആ ആ എന്നാൽ നമുക്ക് നമുക്കും ആ ആണല്ലേ റേറ്റ് എങ്ങനെയാണ് പക്ഷേ നമുക്ക് അത്ര വേണ്ട നമ്മക്കത്രേം ഇല്ല നമുക്കൊരു മുപ്പത്തഞ്ചുലക്ഷം ആ ഒരിതേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ചുള്ളിലോട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് റോഡ് സൗകര്യം മാത്രം മതി നമുക്ക് രാമനാട്ടുകര ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് സ്ഥലം കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഇല്ലേ അതേ നമുക്കൊരു പത്തു സെൻറ് ആണെങ്കിലും പത്തു സെൻറിൽ കുറച്ചു കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്കൊരു ചെറിയൊരു വീട് വെക്കണം അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ വീടായിട്ട് കിട്ടുവാണെങ്കിൽ അത്രേം ഉപകാരം

അരീക്കോടല്ലേ

ആ ഓക്കെ ഒക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് ഹസ്ബൻഡിനോടും കൂടിയൊന്നു പറഞ്ഞിട്ട് നിങ്ങളെയൊന്നു വിളിക്കാംട്ടോ നമുക്കെന്തായാലും സ്ഥലം വേണം അപ്പം നിങ്ങളെ ആ നമുക്ക് നമുക്കൊരു മുപ്പത്തഞ്ചു ലക്ഷം ഉള്ളുട്ടോ നമ്മുടെ ബഡ്ജറ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങടെ ബ്രോക്കറിൻ്റെ അതുംകൂടെ നിങ്ങൾ അതിൽത്തന്നെ ഉൾപ്പെടുത്തിയിട്ട് വേണംട്ടോ നിങ്ങൾ സ്ഥലം നോക്കാൻ നമുക്ക് വേറെ ക്യാഷൊന്നും ഇപ്പം ഇല്ല ആ ആ ഓക്കെന്നാൽ